സ്റ്റാമ്പുകളും നാണയങ്ങള് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഗവേഷണം ഒന്നും നമുക്ക് നടത്തിയിട്ടില്ല സ്റ്റാമ്പുകള് ടെ ശേഖരങ്ങളൊക്കെ നമ്മള് ചെറിയ അധ്യായന സ്കൂളുകളിലൊക്കെ അധ്യായന കാലഘട്ടങ്ങളിലൊക്കെ ആണ് നമ്മള് ശരിക്കും ചെയ്തിരുന്നത് അത് അന്നൊക്കെ ഒരു ഒരു ഹോബിയൊക്കെ ആയിട്ട് അതാണ് നമ്മളത് ചെയ്ത് കൊണ്ടിരുന്നത് പ്രത്യേകമായിട്ട് അതിനെക്കുറിച്ച് ഗവേഷണങ്ങളോ അങ്ങനെ അതിനെക്കുറിച്ചുള്ള സംവിധാനങ്ങളൊന്നും നമ്മള് അങ്ങനെ ചെയ്തിട്ടില്ല ശരിക്കും ഒരു അതൊരു അങ്ങനെ ഉള്ളൊരു സംവിധാനങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് വേണ്ടത് വളരെ ഒരു നല്ലൊരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നി എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ശരിക്കും ഒരു നല്ലൊരു നല്ല ഒരു കീഴ്വഴക്കാണ് അങ്ങനെ ഒരു സംവിധാനങ്ങളൊക്കെ നിലവില് നമ്മുടെ രാജ്യത്ത് ഉണ്ടെങ്കിൽ അത് ശരിക്കും നമ്മുടെ രാജ്യത്തിന് തന്നെ നല്ലൊരു കാര്യമാണ് ഇപ്പോൾ വളർന്ന് വരുന്ന കുട്ടികൾക്കാണേലും അതിനെക്കുറിച്ചൊക്കെയുള്ള പഠനങ്ങളൊക്കെ ക്കുള്ള അവസരങ്ങളൊക്കെ ഉള്ളത് തീർച്ചയായും വളരെ നല്ല ഒരു കാര്യമാണ് അപ്പോൾ അതിനൊക്കെ ഗവൺമെൻറ്റ് നമ്മൾക്ക് സ്കൂൾ കാലഘട്ടങ്ങളും മുതല് ഗവൺമെൻറ്റ് അതിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുക ശ്രമിക്കുന്നതൊക്കെ വളരെ നല്ല ഒരു കാര്യമാണ് ശരിക്കും ഒരു കല്ലുകള് അങ്ങനെ പുരാവസ്തു അങ്ങനെ സംഭവങ്ങള് ഒക്കെ നമുക്ക് കൂടുതൽ പഠിക്കുന്നതിനൊക്കെ ഉള്ള അറിവ് നൽകുന്ന ഒരു കാര്യങ്ങളാണ് അതിൻ്റെ കുറിച്ചുള്ള പഠനത്തിൻ്റെ ഒക്കെ സാങ്കേതികവമായിട്ടുള്ള പുരോഗതിയൊക്കെ നമ്മുടെ അധികാരികള് ശ്രദ്ധിച്ച് അത് വരും തലമുറയ്ക്കൊക്കെ പ്രയോജനകരമാകുന്ന രീതിയില് വളരെ നല്ല രീതിയിലത് ചെയ്യുകയാണെങ്കില് ഏറ്റവും മികച്ച ഒരു സംഭവമായിരിക്കും അത്